വയനാട്ടിലിപ്പോൾ പൊതുവെ മാധ്യമങ്ങളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടുതരത്തിലുള്ള ടിവി ചാനലുകളാണ് ഇപ്പൊൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊൾ ഒന്നെന്ന് പറയുമ്പോൾ വയനാട് വിഷൻ എന്ന് പറയുന്ന ഒരു വയനാട്ടിലെ ഒരു മാധ്യമ ചാനലാണ് അത് ടിവി ചാനലാണത് പിന്നെ വയനാട് വിഷനും പിന്നെ വരുന്നത് മലനാട് എന്നുപറയുന്ന ഒരു ചാനലുമാണ് അതുരണ്ടുമാണ് ടിവി ഷോയായിട്ട് നമുക്ക് ഇപ്പൊൾ വരുന്ന മാധ്യമങ്ങളായിട്ട് വരുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പത്രങ്ങളിലൂടെ ആണെങ്കിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മക്ക് വായനാട്ടിന് വേണ്ടി മാത്രമായി ഒരു പത്രം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ മനോരമ മാതൃഭൂമി അങ്ങനത്തെ പത്രങ്ങളിലൊക്കെ നമുക്ക് വായനാടുകളിലെ ന്യൂസുകള് ഏ വരാറുണ്ട് പിന്നെ പൊതുവെ നമ്മക്കിപ്പോൾ ഫോൺ ഫോണുകളൊക്കെ വന്നതോടുകൂടി വയനാട്ടിലെ എല്ലാ ന്യൂസും നമുക്ക് അപ്പൊൾ തന്നെ ഫോണുകളികൂടെത്തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പൊൾ ഫോണുകളിൽ തന്നെ എന്താ പറയുക വയനാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങള് ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ആഹ് പിന്നെ ഡെയിലിഹണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വഴി നമുക്ക് വായനാടിലെ ന്യൂസുകളൊക്കെ കറക്റ്റ് കൃത്യമായി ഫോണിൽ കൂടെത്തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊൾ നമുക്ക് മാധ്യമങ്ങളുടെ സഹായം എന്നുപറയുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇപ്പൊൾ വയനാട്ടിലെ മാധ്യമങ്ങളുടെ സഹായമായിട്ട് വരുന്നത് ഇത്തരത്തിലാണ് വയനാട്ടിലിപ്പം മാധ്യമങ്ങളുടെ പ്രവർത്തനം നടന്നുവന്നുകൊണ്ടിരിക്കുന്നത്